സ്പോർട്സ് കളിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളൾ എന്ന് പറഞ്ഞാൽ അവർ ഫിസിക്കലി എപ്പോഴും ഫിറ്റാകുന്നു അവർക്ക് മാരകമായ രോഗങ്ങളോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ അവരുടെ ശരീരത്തിന് ഉണ്ടാകുന്നില്ല എപ്പോഴും സ്പോർട്സ് കളിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു ആരോഗ്യമായ ശരീരം അവർക്ക് എന്നേക്കും അവർക്ക് ഒരു ഭാവിയിൽ നിലനിർത്താൻ സഹായിക്കുന്നു അവരുടെ പഠന രേ പഠന രീതിയിൽ ആയാലും അവരുടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആണെങ്കിലും എപ്പോഴും ഒരു കോൺസൻട്രേഷൻ ഈ വ്യായാമത്തിലൂടെ അല്ലെങ്കിൽ സ്പോർട്സിലൂടെ ലഭിക്കുന്നു പല തരത്തിലുള്ള സ്പോർട്സിന്ന് കുഞ്ഞുങ്ങൾക്ക് അവൈലബിളാണ് പല കുഞ്ഞങ്ങൾക്കും പല തരത്തിലുള്ള സ്പോർട്സാണ് താൽപര്യം ക്രിക്കറ്റ് ഫുട്ബോള് ഹോക്കി ബാഡ്മിൻറ്റൺ പല തരത്തിലുള്ളത് ഉണ്ട് പലതും പല തരത്തിലുള്ള ശരീരത്തിന് പ്രയോജനം നൽകുന്ന രീതിയിലുള്ള സ്പോർട്സുകളാണ് ഉള്ളത് ഒന്നും ആർക്കും ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സ്പോർട്സും ഇതുവരെ ഇല്ല എല്ലാവർക്കും എല്ലാവരുടെ ശരീരത്തിന് വളരെ അധികം പ്രയോഗികമായ ഒരു രീതിയിൽ അവരുടെ ജീവിതത്തിന് ഒരു എന്നേക്കും ഒരു അഭിവാജ്യ ഘടകമായി തീരുന്ന ഇതു തന്നെയാണ് സ്പോർട്സ് എന്നു പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വളരെ എന്നും പ്രയോഗ്യ തലത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് സ്പോർട്സ്